അഴിമതിയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ അഴിമതി എനിക്ക് വലിയ അങ്ങനെയുള്ള അനുഭവമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ന്യൂസ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് പേഴ്സണലി ഒരു അനുഭവവും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം പോലീസുകാർ നമ്മുടെ ഞാൻ കൊടുക്കുന്ന ടാക്സ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കൊടുക്കുന്ന ടാക്സ് വച്ചാണ് അവർ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ളൊരു ബോധം ഇല്ലാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുന്നത് എല്ലാവരും ക്രിമിനലാണ് എന്നുള്ള രീതിയിൽ പെരുമാറുന്ന പോലീസുകാരെ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് ആ അവരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഉണ്ട് സദാചാര പോലീസിംഗ് ആയാലും അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയായാലും വംശീയമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർ അവരുടെ സംസാരം പോകാറുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു പെറ്റി കേസിന് പോലും ക്രിമിനൽ എന്നുള്ള രീതിയിൽ പോലീസുകാർ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഈ പോലീസുകാരെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അല്ലെങ്കിൽ അവർ എന്ത് രീതിയിലുള്ള ചിന്തയിലൂടെ ആണ് കടന്നു പോകുന്നത് എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാതെ പോലീസുകാരെ റിക്രൂട്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ആ ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ പറ്റാത്ത രീതിയിൽ പോലീസുകാർ മാറുന്നുണ്ട്